ആ ഇത് ആ കോൺട്രാക്ടറല്ലേ എന്നാ ഇത് ആ അപ്പോൾ ലാസ്റ്റ് ആ വീടിൻ്റെ കാര്യം സംസാരിച്ചിറ്റേ അതിലേക്ക് എനിക്ക് അഡീഷണലായിറ്ട്ട് താഴൊരു റൂമ് ആഡാക്കണേനു

ആ പ്ലാന് പ്രശ്നം ഇല്ല ചെറുതായാലും പ്രശ്നം ഇല്ല ഒരു ഗസ്റ്റ് റൂം എനിക്കൊരു റൂമും പിന്നൊരു ഹാളും ആണ് അഡീഷണലായിട്ട് വേണ്ടത് ആ ആ അങ്ങനെ ചെറിയ റൂമ് മതി ഒരു ആ ഹോളുന്നന്നെ ആ പ്രശ്നം ഇല്ല അങ്ങനെ പ്രശ്നംല്ല അപ്പോൾ അതിൽ അഡീഷണലായിട്ടിപ്പോൾ എന്തൊക്കെ ഐറ്റംസ് വേണ്ടി വരും

ഇത് ഒരു ബജറ്റ് അധികം വേണ്ട റൂമൊരു ചെറിയ സെറ്റപ്പ് ചെറിയൊരു റൂമ് മതി ചെറിയൊരു സ്കൊയർ ഫീറ്റ് അല്ല ഈ അതല്ല ആ ആ ഓക്കെ ആ അപ്പോൾ ഈൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുവല്ലോ അതിൻ്റെ ഇത് നിങ്ങൾ അതിൻ്റെ പ്ലാന് വെച്ചിട്ട് എനിക്കൊന്ന് ഓക്കെ ആ ഓക്കെ ഓക്കെ പിന്നെ ഈ ബഡ്ജറ്റ് അതിനെത്ര കുറച്ചിട്ടന്നെ കിട്ടോ ഫ്രണ്ട്ലിയാക്കാൻ ആ ഓക്കെ ഓക്കെ ആ നോക്കീട്ട് പറ